നമ്മുടെ ഗ്രാമത്തിൽ വ്യവസായങ്ങൾ എന്തൊക്കെയാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യവസായങ്ങളുണ്ട് നെല്ല് വാഴ ഇഞ്ചി പയർ തക്കാളി കപ്പ എന്നിങ്ങനെ ഒരുപാട് കൃഷികളൊക്കെയുണ്ട് എല്ലാവരും അവരവരുടെ വീട്ടുവളപ്പിൽ അവർക്ക് വേണ്ടുന്നതെല്ലാം ഇപ്പോൾ പാകം ചെയ്യുകയാണ് പിന്നെ ഇവിടെ നെൽ കൃഷിക്കും വാഴക്കൃഷിക്കും ഒക്കെയും കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട് ഇവയിൽ നിന്നൊക്കെ നല്ല ലാഭവും അതേപോലെതന്നെ നഷ്ടമൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെയും ഒരുപാടിടങ്ങളിൽ കണ്ടു വരുന്ന ഒരു വ്യവസായമാണ് മീൻ കൃഷിയും സ്വന്തമായി കുറച്ച് സ്ഥലത്ത് ഒരു കുളം കുഴിച്ച് അതിൽ മീനുകളെ വളർത്തുകയും ചെയ്യാറുണ്ട് പിന്നേയും എല്ലാ ഗ്രാമങ്ങളിൽ കാണുന്നപോലെതന്നെ കുറേ പശുക്കളും ആടുകളും കോഴികളും താറാവുകളും മുയലുകളൊക്കെ വളർത്താറുണ്ട് പിന്നെ ഒരുപാട് നല്ല കായ്ഫലം തരുന്ന മരങ്ങൾ ഒക്കെ വളർത്താറുണ്ട് മാവ് പ്ലാവ് ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യവസായങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ കാണാറുണ്ട്